ഉച്ചയൂണിന് നമ്മൾ സാധാരണ ചെയ്യുന്നത് ചോറും ഒരു പച്ചക്കറിയും പച്ചക്കറി നമ്മളിപ്പോൾ വെള്ളരിക്കയോ അല്ലങ്കിൽ പച്ചക്കായോ അങ്ങനെ എന്തെങ്കിലുമൊരു പച്ചക്കറിയും പിന്നെ ഒരു ഉപ്പേരിയും നമ്മൾ ഉച്ചയൂണിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്നൊരു വിഭവമാണ് പിന്നെ അതിൻ്റെ ഏടാക്കുന്നതെന്ന് വച്ചാൽ നമ്മൾ അച്ഛനും അമ്മയ്ക്കും അവർക്കവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മെയ്നായിട്ട് ഒരു മീൻ കറി ആക്കും മീൻ ഒന്നിക്കൽ കറിയാക്കും അല്ല വരട്ടലോ അല്ലെങ്കിൽ പൊരിച്ചിട്ടോ എങ്ങനെ എങ്കിലും ഒരു മീനിൻ്റെ ഒരു സൈഡ് ഡിഷ് പോലെ ഒരു ഐറ്റം ഉണ്ടാക്കും പിന്നെ എപ്പൊഴെങ്കിലും പപ്പടമോ അച്ചാറോ അങ്ങനെ സൈഡ് ഡിഷായിട്ടെന്തെങ്കിലും ഉണ്ടാക്കും മസ്റ്റായിട്ടുള്ളത് ഒരു പച്ചക്കറി ഒരു ഉപ്പേരി പിന്നെ ഒരു മീൻ മീനോ വല്ലപ്പോഴും ചിക്കനും വാങ്ങാറുണ്ട് പിന്നെ അത്താഴത്തിനാക്കുന്നത് സാധാരണ രീതിയിൽ ഉച്ചക്കുള്ളത് തന്നെ ബാക്കി രാത്രിയും കഴിക്കാറാണ് പതിവ് അല്ലങ്കിൽ എന്തെങ്കിലും ഏടാക്കുന്നതിന് മുട്ട ഓംലൈറ്റോ അല്ലങ്കിൽ ഒരു മീൻ എക്സ്ട്രാ ഒന്ന് പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഏടാക്കാറുണ്ട് അല്ലെങ്കിൽ തന്നെ പിന്നെ നമ്മൾ വല്ലപ്പോഴും ചപ്പാത്തിയും ഒരു ബാജിക്കറിയോ അല്ലെങ്കിൽ ചപ്പാത്തിയും ചിക്കൻ കറിയോ അങ്ങനെ എപ്പൊഴെങ്കിലും ചപ്പാത്തിയും കൂടി കഴിക്കാറുണ്ട് മിക്കവാറും ദിവസങ്ങളിൽ ചെയ്യുന്നത് ഉച്ചയൂണിൻ്റെ ബാക്കി തന്നെ രാത്രി എടുക്കാറാണ് പതിവ്